ആ പറയൂ പറയൂ ആ അതേയോ എത്രാം ക്ലാസിലെ എത്രാം ക്ലാസിലത്തെ അഡ്മിഷൻ്റെയാണ് ആ അതേയല്ലേ എത്ര വയസ്സായി കുട്ടിക്ക് മൂന്നര വയസ്സ് കഴിഞ്ഞു അല്ലേ ഓക്കെ ഓക്കെ

അതായത് ഡോണേഷനൊര് റ്റൊൻ്റി ഫൈവ് ആദ്യം ഉണ്ട് റ്റൊൻ്റി ഫൈവ് കെ ആ ഡോണേഷനുണ്ട് പിന്നെ അത് ഫസ്റ്റ് മന്തിൻ്റെ ഫീസ് അതിൻ്റെ കൂടെ പോവും പിന്നെ സെക്കൻ്റ് മന്തും കൂടി എല്ലാം കൂടി പിന്നേ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ ആ അപ്പം എൽ കെ ജിയൊക്കെ ആയത് കാരണം ഒര് ഫൈവ് ഹൻഡ്രെഡ് പെർ മന്താണ് അടയ്ക്കേണ്ടത് ഫൈവ് ഹൻഡ്രെഡ് പെർ മന്ത് ആ അപ്പം എൽ കെ ജിയല്ലേ ചെറിയ കുട്ടികളല്ലേ ആ ഓക്കെ പിന്നേ അതേയോ ആ ആണല്ലേ എന്താ പേര് ആണല്ലേ അവിടെ കുറേ കുട്ടികളൊക്കെ ഉള്ളത് കാരണം നമുക്കങ്ങനെ പേര് പറഞ്ഞാലൊന്നും അറിയില്ല ആ അതെയല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ആ അത് ഉണ്ടായി ഉണ്ടായിരുന്നു ഒരു നൈൻ്റി പെർസെൻ്റേജ് അഡ്മിഷനൊക്കെ കഴിഞ്ഞു എനിയിപ്പോൽ കുറച്ച് സീറ്റുകൾ കൂടിയുണ്ട് അപ്പോൾ അതുംകൂടിയൊന്ന് ഫില്ല് ചെയ്യാൻ ഉള്ളതേ ഉള്ളു ആ നിങ്ങളെവിടെ വീട് എവിടെ അടുത്ത് തന്നെയാണോ ആ ആ ഓക്കെ അപ്പോൾ ഒരു ആ ആ സ്കൂൾ ബസ്സൊക്കെ ഇല്ല സാധാരണ സമയത്ത് തന്നെയാണ് രാവിലെ ഒരു എവിടെയാണ് സ്ഥലം എവിടെയാണ് വടക്കാഞ്ചേരി അപ്പോൾ ഒരു രാവിലെ ഒരു എട്ട് ഏട്ടു മുതൽ ഏട്ടരരേൻ്റെ ഉള്ളിൽ ബസ്സ് വരും അത് കറക്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് ഇത് ഇതിന് ശേഷം നിങ്ങളവിടെയൊരു അഡ്മിനിസ്ട്രേറ്റീവിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരോടു പോയിട്ട് ചോദിച്ച് കഴിഞ്ഞാൽ അവർ വൃത്തിയിൽ പറഞ്ഞു തരും അപ്പോൾ അ ആ ആ ആദ്യത്തെ കുറച്ച് ദിവസം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും പിന്നെ നിങ്ങൾ അതിനെയൊന്ന് ക്രമീകരിച്ചാൽ മതി ആദ്യത്തെ കുറച്ച് ദിവസം കുഴപ്പമില്ല എങ്ങനെയാണ് പിന്നെ എൽ കെ ജി ആദ്യം ആദ്യമായിട്ട് വരുന്നതല്ലേ പിന്നേയും ചിലപ്പോൾ കുട്ടി കരയുകയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് ആക്കേണ്ടി വരുമായിരിക്കും അപ്പോൾ സ്കൂൾ ബസ്സൊരു ആ അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ടാക്കാൻ ശ്രമിക്കൂ ആ എങ്ങനെ കുട്ടിയെങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ സ്കൂളിലേക്ക് പോവില്ല അങ്ങനെയൊക്കെ പറയുന്ന കുട്ടിയാണോ ആ ഓക്കെ ഓക്കെ അപ്പം ഡൊണേഷൻ്റെ കാര്യം യൂണിഫോമ് ഒരു ചെക്ക് ഷർട്ടും ഫ്രോക്കും ആണ് ആ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ അഡ്മിഷന് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്മിനിസ്ട്രേറ്റീവിലുള്ള ബ്ലോക്കിലുള്ള ആളോട് ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ യൂണിഫോമിൻ്റെ കാര്യങ്ങളൊക്കെ ആൾ ഡീല് ചെയ്യും യൂണിഫോമ് അതുപോലെ ബുക്ക്സ് നോട്ട് ബുക്ക്സ് ഏല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാം ഇവടെ നിന്ന് തന്നെ തരും അത് ആ പിന്നെ ആ പിന്നെ ഫസ്റ്റ് മന്തിൻ്റെ കാര്യം ആ ഈ ഇരുപത്തയ്യായിരത്തിൽ പോവും പിന്നെ സെക്കൻ്റ് മന്ത് മുതലാണ് ഫീസിൻ്റെ കാര്യങ്ങൾ വരുന്നത് ആ അങ്ങനെയാണ് കാര്യങ്ങൾ ആ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം ആദ്യത്തേത് ഈ കുറച്ച് ദിവസങ്ങളിൽ ഒന്ന് കൊണ്ട് ചെന്ന് ആക്കാൻ ശ്രമിക്കൂ അവർക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുമല്ലോ ആദ്യമായിട്ട് സ്കൂളിൽ പോവുമ്പോൾ അപ്പോൾ പിന്നെയുള്ളത് ബസ്സിൽ നമുക്ക് ആക്കിക്കൊള്ളാം ആ ഓക്കെ ഓക്കെ യൂണിഫോമിന് അഡ്മിഷൻ എടുത്തതിന് ശേഷം യൂണിഫോമിൻ്റെ കാര്യങ്ങളൊക്കെയൊന്ന് തുണിയൊക്കെ എടുത്തിട്ട് പോയിക്കൊള്ളു